എൻ്റെ നാട് വായനാടാണ് നാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ദൂരെ ഐ മീൻ നമ്മൾ നഗരത്തിലൊക്കെ താമസിക്കുന്നതെങ്കിൽ നമുക്കൊന്ന് പുറത്തിറങ്ങാനോ നമുക്ക് സേഫ് സേഫായിട്ട് ഒന്ന് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാനോ ഫ്ലാറ്റിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും നിൽക്കുക അതിനൊക്കെയാണ് ചാൻസ് കൂടുതലായിട്ട് ആരോടും സംസാരിക്കാൻ നമുക്ക് ഫ്രണ്ട്ഷിപ്പോ അങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടാവില്ല സ്കൂളിൽ പോകുന്നു തിരിച്ചു വീട്ടിൽ വരുന്നു പിന്നേ പുറത്തേക്കിറങ്ങാനുള്ള സാഹചര്യമൊന്നുമില്ല വീട്ടുകാരോടൊപ്പം പുറത്തേക്കിറങ്ങുന്നും ഒന്നുമില്ലാണ്ട് ഒന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങുക അങ്ങനത്തെ ഒന്നിന്നും പറ്റില്ല പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങാം ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും പോകാം നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല അടിച്ചുപൊളിച്ച് വീട്ടിൽ വരാം ഫ്രണ്ട്സിനേയും കൂട്ടി വീട്ടിൽ വരാം പിന്നേ വീടിൻ്റെ അടുത്തൊക്കെ എല്ലാവരുമായിട്ട് നല്ല പരിചയമാവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നേ നഗരത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരാധനാലയത്തിലൊന്നു പോകുവാൻ കഴിയില്ല ഇവിടെയാകുമ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാം പള്ളിയിൽ പോകാം എവിടെ വേണമെങ്കിലും നമുക്ക് നമുക്ക് ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിന് നടക്കാനൊക്കെ സാധിക്കും